റെഡ് ഫോർട്ട് ചെങ്കോട്ട അതേപോലെ താജ് മഹൽ അതേപോലെ ഇന്ത്യ ഗേറ്റ് കേരളം കേരളത്തിലെ കുട്ടനാട് അതേപോലെ പാലക്കാട് ആണെങ്കിൽ അത് വയനാട് ഇടുക്കി ഇതൊക്കെ നല്ല ലാൻഡ്മാർക്കുകൾ ആണ് കേരളം ഒന്നാമത് അറിയുന്നത് തന്നെ ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വളരെ പ്രധാന പങ്ക് കേരളത്തിന് ഉണ്ട് അതേപോലെ ഇന്ത്യയിലും വളരെ പ്രധാനപ്പെട്ട വിനോദ സഞ്ചാരികളെ അസ ആകർഷിക്കുന്ന ഒരുപാട് ലാൻഡ്മാർക്കുകൾ ഉണ്ട് അതേപോലെ അവർക്ക് ഒക്കെ വർഷാവർഷം വരാറുണ്ട് വിധേ വിദേശത്തുന്നൊക്കെ വിനോദ സഞ്ചാരികള് വർഷാവർഷം വന്ന് കണ്ട് പോകാറുള്ളതാണ് അതേപോലെ കേരളത്തിൽ ആണെങ്കിലും നല്ല ക്ലൈമറ്റ് ആയിരിക്കും അതേപോലെ മഴ വേനല് അങ്ങനെ ഉള്ള ക്ലൈമറ്റും ആണ് നല്ല നല്ലൊരു സീസണും ആയിരിക്കും ഈ സം മൺസൂൺ സീസൺ എന്നൊക്കെ പറയുമ്പോൾ മഞ്ഞൊക്കെ മുടി ആ ഒരു കാറ് തന്നെ വളരെ വ്യത്യസ്തം ആയിട്ടുള്ള ഇത് ആണ് അതൊക്കെ ആസ്വദിക്കാൻ വിനോദ സഞ്ചാരികള് ഒരുപാട് വിനോദ സഞ്ചാരികളുടെ തിരക്ക് ആയിരിക്കും മൺസൂൺ കാലത്ത് എന്നൊക്കെ പറയുമ്പോൾ വളരെ അധികം വെറൈറ്റി ഫുഡ് കിട്ടുന്നതും അങ്ങനെ ഉള്ള സ്ഥലങ്ങൾ ആണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഒരുപാട് കൽച്ചറൽ ആയിട്ടുള്ള പരുപാടികൾ ഉള്ളതുകൊണ്ട് തന്നെ അതേപോലെ ഓരോ വിഭാഗകാരുടേം പ്രത്യേക തരം ഫുഡ് ഐറ്റം ഫുഡുകൾ ആണ് നോർത്തിലൊരു ഫുഡ് ആണ് സൗത്തിൽ ഒരു ഫുഡ് ആണ് അങ്ങനെക്കെ വെറൈറ്റി വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ വിനോദ സഞ്ചാരികളെ പെട്ടെന്ന് ആകർഷിക്കും അതേപോലെ ലാൻഡ്മാർക്കുകൾ ആണ് താജ് മഹൽ ആണെങ്കിലും മനുഷ്യന്മാര് കെട്ടിപ്പടുത്ത യന്ത്രങ്ങൾ ഒന്നും യൂസ് ചെയ്യാൻഡ് പണി കഴിപ്പിച്ച ഒന്നാണ് താജ് മഹല് അതുകൊണ്ട് തന്നെ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ വിനോദ സഞ്ചാരികളേം ആകർഷിക്കുന്നത് ഇതൊക്കെ തന്നെ ആണ്